നീന്തൽ പഠിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് വെള്ളത്തിനോട് പേടി പാടില്ല പിന്നെ വേണ്ട ഒരു കാര്യമാണ് നീന്തൽ പഠിക്കുക എന്നതിനോടുള്ള അതിയായ ആഗ്രഹം ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് നീന്തൽ പഠിക്കാൻ ആർക്കും പറ്റില്ല അപ്പം നമ്മൾ അതിന് കുറച്ച് ശ്രമിക്കുക തന്നെ വേണം അത് ഇപ്പോൾ ഒരു ദിവസം ആകാം രണ്ടു ദിവസമാകാം മൂന്ന് ദിവസമാകാം ചിലപ്പോൾ ഒരാഴ്ചയാകാം ഒരു മാസമാകാം അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്കിത് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടൊരു പിന്തിരിപ്പൻ മനോഭാവം ഒരിക്കലും പാടില്ല അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ടും വേണ്ട കാര്യം അതിനോടുള്ള അഭിനിവേശം അത് പഠിച്ചേ ഞാൻ അടങ്ങൂ അത് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത അത് പഠിച്ചിട്ടേ ഞാൻ ഇനി ഇതിൽ നിന്ന് പിന്തിരിയൂ എന്നുള്ള ഒരു ചിന്ത നമുക്ക് എന്തായാലും വേണം അപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് പിന്നെ തീരെ പേടി പാടില്ല വെള്ളത്തിനോട് പേടി പാടില്ല മുങ്ങുമ്പോഴത്തേക്ക് അയ്യോ വെള്ളം കയറി ഞാൻ മരിച്ച് പോകുവോ എന്നുള്ള ഭയം ഒരിക്കലും പാടില്ല